നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിറയെ ഉണ്ടെങ്കിലും പുറത്തുപോയി പഠിക്കാനാണ് എല്ലാവർക്കും താല്പര്യം അതിന് പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയാണ് നമുക്കെന്താ വേണ്ടത് എന്ന് അറിഞ്ഞു പഠിപ്പിക്കാൻ ഇവിടെ ആരുമില്ല നമ്മൾ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി പഠിപ്പിക്കുകയാണ് അതേപോലെ അതുതന്നെ പഠിപ്പിക്കുകയാണ് പക്ഷേ കുട്ടികളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് വളർത്താൻ ഒരു സംവിധാനവും ഇല്ല എന്നാണ് തോന്നുന്നത് അതേപോലെത്തെ ഗ്രാമങ്ങളിലും സ്കൂളുകളും കോളേജുകളും എല്ലാം വളരെ കമ്മിയാണ് നമുക്ക് വേണ്ടത് എന്താ പറഞ്ഞു വെച്ചാൽ കുട്ടികളുടെ കഴിവുകൾ അനുസരിച്ച് അവർക്ക് എജ്യുക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെത്തന്നെ കോളേജുകളിൽ അധികം കോഴ്സുകൾ നമുക്ക് അവൈലബിൾ അല്ല കുറച്ചു കുറച്ച് എന്താ പറയുക കോഴ്സുകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൻജിനീയറിംഗ് ബി എസ് സി അതുപോലെ നഴ്സിംഗ് ഇതുപോലെയുള്ള മെയിനായിട്ടുള്ള കോഴ്സുകൾ മാത്രമേ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ അതല്ലാതെ വേറെയുള്ള എന്താ പറയുക കോഴ്സുകൾ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ടുതന്നെ ആൾക്കാര് പുറത്തു പോയി അവർക്ക് എന്താണ് ആവശ്യമായത് എന്ന് മനസ്സിലാക്കി പഠിക്കാനാണ് പലർക്കും താല്പര്യം അതിന് മെയിൻ കാരണം നമ്മളെ എജ്യുക്കേഷൻ സിസ്റ്റം അതിൽ വരുന്ന കുറവുകൾ ആണ്